എടാ ഞാനേ ഒരു കാര്യം ചോദിക്കാന് വേണ്ടിയിട്ട് രണ്ടു ദിവസമായിട്ട് നിൻറെടുത്ത് സംസാരിക്കാൻ ഇപ്പോൾ നമ്മള് ഓല ഊബറിലൊരു ട്രിപ്പ് പോയി അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ട്രിപ്പ് പോയി കഴിഞ്ഞു നമുക്ക് അവരെ റേറ്റിങ് കൊടുക്കില്ലേ അതിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങള് അപ്പോൾ അതിൻ്റെ നമ്മളതില് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു റേറ്റിങ് കൊടുക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാറോടിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവർ ശ്രദ്ധിക്കണ്ട കാര്യങ്ങള് അങ്ങനെ കാറിൻ്റെ അതിൻ്റെ ഉള്ളിൽ സംഭവങ്ങള് എ സി കാര്യങ്ങള് പിന്നെ അത് ഓടിക്കുന്ന രീതി പിന്നെ അതിൻ്റെ ഉള്ളില് സ്മെല്ലും കാര്യങ്ങളും